പാചകത്തില് എന്തെങ്കിലും ചേരുവകള് കൂടിപ്പോയിക്കഴിഞ്ഞാല് ഇപ്പം ഉപ്പ് കൂടിപ്പോയിക്കഴിഞ്ഞാല് ഞാനതിനകത്ത് ഇച്ചിരിയും കൂടി ആഡ് ചെയ്യും എന്തെന്താണ് ഞാൻ കറി വെയ്ക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്ത് ഡിഷ് ആണോ ഞാനത് ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറച്ചും കൂടി ആഡ് ചെയ്യും ചിക്കൻ കറി വെയ്ക്കുന്നതിൽ ഞാനതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൊഴിക്കും ഉരുളക്കിഴങ്ങ് ഇടും അപ്പം അത് ബാലൻസ് ആയിക്കോളും അങ്ങനെ ചേരുവകള് കൂടിക്കഴിഞ്ഞാല് ഞാനങ്ങനെ എന്തെങ്കിലും കയ ചെയ്യും അല്ലെങ്കില് ഒന്നും ചെയ്യാൻ പറ്റൊരാത്തൊരവസ്ഥയാണെങ്കില് ഞാൻ അ ഡിഷ് വേറെന്തെങ്കിലും ഡിഷായിട്ട് ഉണ്ടാക്കും